നമ്മൾ കുറെ പ്രൈവറ്റ് ബസ്സോ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും ഒരു ദിവസം ഒരു നാല് പ്രാവശ്യം രണ്ട് പ്രാവിശ്യല്ല നാല് പ്രാവിശ്യം ഒരു ഒരു മണിക്കൂറോ അല്ലേൽ രണ്ട് മണിക്കൂറോ വിട്ടിട്ട് സ്റ്റേറ്റ് ബസ്സുകള് ഗവൺമെൻറ്റ് അനുവദിച്ച് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഗതാഗതത്തിൽ നിന്ന് അങ്ങനെ ഒരു പരിഹാരം അതായത് ഗതാഗതം കിട്ടാതെയുള്ള പരിഹാരം പിന്നെ ഓട്ടോകൾ ഒത്തിരി ചില സ്ഥലങ്ങളിൽ ഓട്ടോ എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട് അല്ലെങ്കിൽ ലെയിൻ ബസ്സ് വേണം ഈ ഒരു ദിവസം മൂന്ന് പ്രാവശ്യാം നാല് പ്രാവശ്യം ലെയിൻ ബസ്സ് ആ വഴിക്കുണ്ടെങ്കിൽ നമ്മൾ അത്രയും നേരം നമ്മൾ ഓട്ടോയ്ക്ക് ഭയങ്കര പൈസ കൊടുക്കേണ്ടി വരും നമ്മളിവിടെ ഇവിടുന്നൊരു പതിമൂന്ന് രൂപക്ക് ബസ്സ് ടിക്കറ്റിന് പോകേണ്ട സ്ഥലത്ത് നമ്മൾ ഓട്ടോ കൂലി നൂറു രൂപ കൊടുക്കേണ്ടി വരും അപ്പം അതിനേക്കാളും വലുത് നമുക്ക് ബസ്സുകൾ അനുവദിച്ച് കിട്ടുവാണെങ്കിലോ അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും നമുക്ക് വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം ട്രെയിനില്ല ബസ്സുകളാണ് നമ്മൾ കൂടുതലും പിന്നെ യാത്ര യാതക്കായിട്ട് ഉപയോഗിക്കുന്നത് ബസ്സ് ഓട്ടോറിക്ഷകളൊക്കെയാണ് സ്വകാര്യ വാഹനങ്ങൾ ഉള്ളവർക്ക് കുഴപ്പമില്ല പക്ഷേ സാധാരണക്കാർക്ക് അങ്ങനെയല്ലല്ലോ